മലയാളികൾ അവരുടെ ഭാഷ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നൊന്നും ഇല്ല ഇപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് സംസാരിക്കാൻ പോലും അറിയില്ല ഭാഷേനോടൊരു റെസ്പെക്ട് ഇല്ല മലയാളം ഭാഷ പഠിക്കാൻ തന്നെ താൽപര്യമില്ല എല്ലാവർക്കും ഇംഗ്ലീഷ് പഠിച്ചിട്ട് വിദേശത്തു പോയാൽ മതി ഇപ്പോൾ നമ്മൾ വിദേശത്താണേലും സ്വദേശത്താണേലും എവിടെയാണെങ്കിലും നമ്മൾ നമ്മളുടെ ഭാഷ മറക്കരുത് വിദേശത്ത് പോയാലും അവിടെ മലയാളികളുണ്ടെങ്കിൽ നമ്മൾക്കറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളവരോട് മലയാളം തന്നെ സംസാരിക്കുക വേറെ അന്യഭാഷകളൊന്നും അവരടുത്ത് സംസാരിക്കാതെ നമ്മൾ നമ്മുടെ ഭാഷ തന്നെ അവരടുത്ത് സംസാരിക്കുക അതാണ് അങ്ങനെ ആണ് നമ്മൾ നമ്മുടെ നമ്മുക്കുണ്ടാവുന്നൊരു സ്വ സ്വത്വബോധം പ്രകടിപ്പിക്കണം നമുക്ക് നമ്മളുടെ ഭാ ഭാഷയോടും നമ്മുടെ ഭാഷയോടും നമ്മുടെ വൽക്കരണത്തിലൂടെ നമ്മൾ നമ്മൾടെ നാടിനും അതുപോലെത്തന്നെ രാജ്യത്തോടും കരുതൽ ചെയ്യണം